രാഷ്ട്രീയ സംഘർഷം സൃഷ്ടിക്കാൻ ചിലർ മതത്തെ മുതലെടുക്കുകയും മതത്തെ ഒരു കച്ചവടമായി ഉപയോഗിക്കുകയും ചെയ്യുന്നു എന്നതിനോട് പൂർണമായിട്ട് അല്ലെങ്കിലും ഭാഗികമായി ഞാൻ യോജിക്കുന്നുണ്ട് ഇന്ത്യ ഒരു മതേതരത്വ രാജ്യമാണ് മുസ്ലിംസും ഹിന്ദുവും ക്രൈസ്തവനും ഒരുമിച്ച് വസിക്കുന്ന ഒരു മനോഹരമായ ദേശം അതുപോലെത്തന്നെ നിയമപ്രകാരം ഒരു വ്യക്തിക്ക് ഏത് മതത്തില് വിശ്വസിക്കാനും ഏത് മതത്തെ പിന്തുടരാനും അവകാശമുണ്ട്

ഇന്ന് മതങ്ങളിലേക്ക് നമ്മള് തിരിഞ്ഞു നോക്കുമ്പോള് രാഷ്ട്രീയം വളരെ ശക്തമായി ഉപയോഗിക്കുന്ന ഒരായുധമാണ് മതം ജനങ്ങളെ പരസ്പരം തറ പറ്റിക്കാനും പരസ്പരം വിദ്വേഷങ്ങൾ വളർത്തിയെടുക്കാനും രാഷ്ട്രീയം മതത്തെ ഉപയോഗിക്കുന്നുണ്ട് പലപ്പോഴും രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വലിയ പിടിവള്ളി എന്ന് പറയുന്നത് മതമാണ് നോർത്ത് ഇന്ത്യയിലോട്ടൊക്കെ പോവുമ്പോള് നമുക്ക് കാണാൻ സാധിക്കുന്ന മറ്റൊരു കാര്യമാണ് ഈ മതത്തിൻ്റെ പേര് പറഞ്ഞ് പരസ്പരം തമ്മിൽ തല്ലുന്ന ജനങ്ങൾ ലോകത്തിലെ വിദ്യാഭ്യാസത്തിൽ ഒന്നാം സ്ഥാനം നേടുന്നത് ഏറ്റും കൂടുതൽ വിദ്യാഭ്യാ വിദ്യാസമ്പന്നര് അടങ്ങിയിരിക്കുന്ന നാടാണ് ഇന്ത്യ പക്ഷേ ആ ഇന്ത്യയില് പോലും എത്ര വലിയ വിദ്യ അഭ്യസിച്ചാലും ആ വിദ്യ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാത്ത ഒരു രാഷ്ട്രമായിട്ട് ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുകയാണ് മണിപ്പൂർ ഇഷ്യൂവിലോട്ടൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോള് നമുക്ക് കാണാനായിട്ട് സാധിക്കും അത് പിന്നെ ജാതിയുടെയോ മതത്തിൻ്റെ ഒക്കെ പേരിലുള്ള യുദ്ധങ്ങളാണ് കലാപങ്ങളാണ് പക്ഷേ ഇതിനിടയിലെ ജീവിതം നഷ്ടപ്പെടുന്ന ഒരുപാട് മനുഷ്യരുണ്ട് ശരിക്കും നിയമപാലർക്ക് ഇതിനെയൊരു പരിധിവരെ തടയാനായിട്ട് സാധിക്കും പക്ഷേ എന്തുകൊണ്ട് അവര് തടയുന്നില്ല എന്തുകൊണ്ട് അവര് അതിനകത്ത് ഇടപെടുന്നില്ലന്നൊക്കെയുള്ളത് വലിയ ചോദ്യമാണ് ഈയൊരു ചോദ്യം മുൻനിൽക്കുമ്പോള് നമുക്ക് നമുക്ക് തന്നെ ചിന്തിക്കാവുന്ന കാര്യമാണ് രാഷ്ട്രീയ സംഘർഷം സൃഷ്ടിക്കാൻ മതത്തെ മനുഷ്യർ മുതലെടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം എൻ്റെ ഒരു പ്രധാനപ്പെട്ട അഭിപ്രായം ഇവിടെ പറയാനുള്ളത് എന്തെന്ന് വെച്ചാൽ രാഷ്ട്രീയം ജനത്തിൻ്റെ നന്മയ്ക്കായിട്ടുള്ളതായിരിക്കണം പക്ഷേ ഇന്നത്തെ രാഷ്ട്രീയം ജനത്തിൻ്റെ ബലഹീനതകൾ കണ്ടെത്തി അതിലൊന്നു തന്നാണ് മതം ആ മതം ആ മതത്തിനെ ബഹുമാനിക്കാതെ പരസ്പരം പോരടിക്കാനുള്ളൊരു മാർഗ്ഗം മാത്രമായിട്ട് മതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന അനേകം മനുഷ്യര് അവിട്ന്നൊക്കെ മനുഷ്യര് ആ ഒരു കാര്യം മാറ്റി നിർത്തിയാൽ ഒരു പക്ഷേ ഈ ഒരു ഇന്ത്യ എന്ന രാഷ്ട്രം തന്നെ വളരെ മനോഹരമായി മുന്നോട്ടുകൊണ്ടുപോവാമായിരുന്നു മതത്തിലെ വ് വ്യത്യസ്തമായ ആചാരങ്ങള് വ്യത്യസ്തമായ രീതികള് കാഴ്ചപ്പാടുകൾ ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് രാഷ്ട്രീയക്കാര് മതത്തെ ഉപയോഗിച്ച് ജനങ്ങളെ നശിപ്പിക്കാൻ നോക്കുന്നുണ്ട്